സാംസ്കാരിക പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കളികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് കേരളത്തിൽ തന്നെ വളരെയധികം നാടൻ കളികളുണ്ട് അതിൽ തന്നെ പണ്ട് അവധിക്കാലം പണ്ടവധിക്കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതലധികം സമയം ചിലവഴിച്ചിരുന്നത് കളികൾക്ക് കൂടെയായിരുന്നു അതിൽ പല കളികളുണ്ട് കാരണമെന്നുവെച്ചാൽ സ്കൂളിൽ വിട്ടു വന്ന് വന്ന് കളികൾ കളിക്കാൻ വേണ്ടിയായിരുന്നു കുട്ടികളാദ്യം ഇറങ്ങിക്കൊണ്ടിരുന്നത് അതിൽ ഞാനും ചെറുപ്പകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു കാരണം സ്കൂൾ വിടാൻ നോക്കിയിരിക്കും ഒന്ന് ഒന്ന് കൂട്ടുകാരോടൊത്ത് ഒത്ത് കാരണമെന്നുവെച്ചാൽ കളികളിൽ ഈ കളികളോട് കളിക്കാൻ കളിക്കാൻ ഇറങ്ങുന്നത് അതിൽ കുറച്ച് കളികളെന്ന് പറഞ്ഞാൽ ഗോലി കളി ഉണ്ടായിരുന്നു എട്ടൂലി ഉണ്ടായിരുന്നു സാറ്റു കളി ഉണ്ടായിരുന്നു തലയിൽ തൊടീലുണ്ടായിരുന്നു കുഴിപ്പന്തുകളി ഉണ്ടായിരുന്നു കുട്ടീം കോലുമുണ്ടായിരുന്നു കള്ളനും പോലീസൊക്കെ കളിക്കുമായിരുന്നു കണ്ണ് കെട്ടിക്കളി കോൽക്കളി അക്ക് കളി ചീട്ട്കളി വള്ളംകളി അതിൽ ഇതിൽ ഇത്രയും കളികളിൽ തൊട്ട് ഈ കളികളൊക്കെയായിരുന്നു പണ്ടുകാലത്ത് ഞങ്ങൾ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ നമുക്കെന്നറിയുമോ ആ ഒരു ആ സമയത്തൊരു സന്തോഷം അതായിരുന്നു അതിൽ തന്നെ മാനസികമായിട്ട് നമുക്ക് എന്താണെന്നറിയുമോ ഒരു റിലാക്സ് ആയ സമയത്ത് ഉണ്ടായിരുന്നു ഞാനൊക്കെ വച്ച് ചെറുപ്പകാലത്ത് നമുക്ക് മറ്റ് മറ്റുള്ള കാര്യങ്ങളിൽ വല്യ വല്യ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും നമുക്ക് ചിന്തയുണ്ടാകുന്നില്ലല്ലോ കാരണമെന്നുവെച്ചാൽ നമുക്ക് കളിക്കാൻ പോവണം സ്കൂളി പോവണം പിന്നെ ഈ കളി കഴിഞ്ഞിട്ട് ഈ വീട്ടിൽനിന്നുള്ള ഈ അമ്മയെ അച്ഛൻ്റെ കയ്യിൽനിന്നുള്ള തല്ലു മേടിക്കൽ അതൊക്കെയൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാ കാരണം വെച്ചാൽ ആ സമയത്തുണ്ടായ ആ ഒരു സന്തോഷം ഇപ്പോഴത്തെ ഈ ഈ ജനറേഷനിലെ പിള്ളേർക്ക് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോണിൽ ഫോണിലുള്ള പരിപാടിയാണ് ആ അതൊക്കെയെന്ന് വെച്ചാൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു വ്യായാമം ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല ഈ കാരണം വെച്ചാൽ അന്ന് അന്ന് ഇതേപോലെ നമ്മുടെ ചെറുപ്പകാലത്ത് ഈ ഫോണോ വണ്ടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഇപ്പം വീട്ടിൽനിന്ന് ഇറങ്ങുന്നത് തന്നെ ആദ്യമെടുത്ത് കുട്ടിയെടുത്ത് വെക്കുന്നത് വണ്ടിയിലോട്ടാണ് വെക്കുന്നത് കാരണം വെച്ചാൽ അന്ന് കാരണം വെച്ചാൽ പണ്ട് വണ്ടിയില്ല ഫോണും ഇല്ല കാരണം വെച്ചാൽ നമുക്ക് ഈ ഇപ്പം പറഞ്ഞാൽ സൈബർ യുഗമാണ് അന്ന് അങ്ങനെയല്ലായിരുന്നു കാരണം വെച്ചാൽ നമ്മൾക്ക് ആൾക്കാർ പറഞ്ഞായിരുന്നു നമ്മൾക്ക് എല്ലാ കാര്യവും അറിയുന്നത് കാരണം വെച്ചാൽ ഇവിടുന്ന് വീട്ടിൽനിന്ന് ഒന്ന് കൂവിയാൽ മതി അപ്പം തന്നെ കൂട്ടുകാർ വന്ന് കളിക്കാൻ ഇറങ്ങുമായിരുന്നു കാരണം വെച്ചാൽ ആ സമയത്തെ ഒരു സന്തോഷം ആ ഒരു തലമുറ നമുക്കൊന്നും ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ കിട്ടാറില്ല